ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാല് ഇരുപത്തി രണ്ട് മൂന്ന് രണ്ടായിരത്തി ഏഴ് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്